അപ്പം ഞങ്ങളുടെ സ്ഥലത്തെ ആളുകൾ വായനശാലകൾ ഉൾപ്പെടുത്താറും പ്രയോഗപ്പെടുത്താറുണ്ടോയെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഫോ മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറും ടി വിയൊക്കെ ഒരു അടുത്ത കാലത്തതാണല്ലോ ടി വിയൊക്കെ വന്നത് അപ്പം അങ്ങനെയുള്ള ടെലിവിഷനും അതും കമ്പ്യൂട്ടറുകളും ഫോണും ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ വായനശാലകൾ ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളുണ്ടായിരുന്നു ആളുകൾ നല്ല രീതിയിൽ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ ആ പ്രദേശത്തെ ആളുകളെയെല്ലാം ഒന്നിച്ചു കൂടി വായനശാലകൾ വന്നിരിക്കുന്നു അപ്പം അവിടെ ഒരു ടി വിയൊക്കെ ഉണ്ടാകത്തുള്ളൂ ആ ടി വിയൊക്കെ കണ്ട് അതിലെന്തെങ്കിലുമൊക്കെ ന്യൂസൊക്കെ കണ്ട് എന്നിട്ട് അതിനാകത്തു നിന്ന് ഈ ലൈബ്രറി പുസ്തകമൊക്കെ എടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ ലൈബ്രറി പുസ്തകം തിരിച്ചു കൊണ്ട് വെച്ച് അടുത്ത ലൈബ്രറി പുസ്തകം എടുത്ത് അങ്ങനെ പ്രയോജനപ്പെടുത്തുമായിരുന്നു അങ്ങനെ പുസ്തകം വായിച്ചുള്ള അറിവുകൾ ഒരുപാട് അന്നത്തെ കാലത്തെ ആളുകൾക്കുണ്ടായിരുന്നു പഠനകാലത്ത് ലൈബ്രറിയിൽ ഇത്രത്തോളം സമയം ചിലവഴിച്ചിട്ടുണ്ടെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഠനകാലത്തും ഇതു പോലെ ലൈബ്രറിയിലന്നും കുട്ടികളായതു കൊണ്ട് ഫോൺ വന്ന് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ടി വി ടെലിവിഷൻ കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പുസ്തകങ്ങൾ വായിക്കാനായിട്ടോ കുറച്ചധികം സമയം ചിലവഴിക്കുമായിരുന്നു ലൈബ്രറിയിൽ പോകുന്നു പലതരം പുസ്തകങ്ങൾ പലതരം മാഗസിൻസ് ഇതെല്ലാം എടുക്കുന്നു മറിക്കുന്നു അവിടെ വെച്ചു തന്നെ കുറച്ച് വായിക്കുന്നു കുറേ ചില പുസ്തകങ്ങൾ നമുക്ക് വീട്ടിൽ കൊണ്ടു വരാൻ പറ്റുന്ന പുസ്തകങ്ങൾ എന്തു ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടു വരുന്നു എന്നിട്ട് ഇതു വായിക്കുന്ന ഒരാഴ്ച് കൊണ്ട് വീട്ടിലുള്ളവരെ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു അവരും വായിക്കുന്നു അതിനു ശേഷം നമ്മളിതൊരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു കൊണ്ട് വെയ്ക്കുന്നു പിന്നെ അടുത്ത പുസ്തകം എടുക്കുന്നു അങ്ങനെ ഒരുപാട് സമയം പുസ്തകം വായിക്കാനായിട്ട് ചിലവഴിച്ചിട്ടുണ്ട് അതിൽ നിന്നു കിട്ടുന്ന അറിവ് എന്നു പറയുന്നത് ഒരു വ്യത്യസ്തമായിരുന്നു പുസ്തകം ഇഷ്ടപ്പെട്ടിരുന്ന പുസ്തകങ്ങളിലെ കഥ കവിത പിന്നെ നോവലുകൾ നല്ല ചെറു കഥകളൊക്കെ നേ നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്ന പുസ്തകങ്ങൾ നല്ല രീതിയിൽ വായിക്കുമായിരുന്നു ഇച്ചിരി വലുതാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് സമയം കിട്ടും നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ സമയം കിട്ടും ഇനി കൂടുതൽ സമയം നമ്മുടെ കയ്യിൽ പുസ്തകങ്ങൾ വെച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഫൈൻ അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതു കൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ സമയം വെച്ചു കൊണ്ടിരിക്കത്തില്ല ഈ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നു വീട്ടുകാരും വായിക്കുന്നു എന്നിട്ട് കൊണ്ടു കൊടുക്കുന്നു എൻ്റെയൊക്കെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും വീട്ടിലുള്ള അമ്മയുടെയൊക്കെ ഏപ്പിച്ചിട്ട് പോകും പുസ്തകം ഞാൻ വായിച്ച് തിരുന്നതിനും മുൻപേ അമ്മ വായിച്ചിരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ പുസ്തകങ്ങൾ ലൈബ്രറിയൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്